ഇവിടെയുള്ള മത്സ്യ തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണിയെടുക്കുന്നവരൊക്കെ ആണ് അപ്പോൾ അവർക്ക് ജാതിയും മതവുമെന്നൊരു പ്രശ്നമേയല്ല ഇപ്പോൾ ഏത് ജാതിയിൽ പെട്ടവരാണെങ്കിലും അവരെല്ലാം മനുഷ്യരാണ് എന്നാണ് മത്സ്യ തൊഴിലാളികളാണെങ്കിലും

കാരണം ഇപ്പോൾ മീൻ കഴിക്കാത്തതായിട്ട് നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിൽ തന്നെ അങ്ങനെ ആരും ഇല്ല ഇപ്പോൾ കൂടിയ ആൾക്കാർ എന്നു പറഞ്ഞാൽ ഇല്ലാത്തത് എന്താ പറയുക ഇപ്പോൾ കഴിക്കാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ കൂടുതലും ബ്രാഹ്മിൻസ് അങ്ങനത്ത ആൾക്കാരാണ് കൂടുതലും കഴിക്കാത്തത് അപ്പോൾ മത്സ്യ തൊഴിലാളികൾക്ക് ജാതിയും മതവും അങ്ങനെ ഒരു ഇതില്ല പക്ഷേ എന്നാലും ഈഴവരുണ്ട് വിശ്വകർമ്മരുണ്ട് പിന്നെ ആദിവാസികളുണ്ട് അങ്ങനെ അപ്പോൾ എസ് റ്റിക്കാർ അങ്ങനെ പലതരം അതായതിപ്പോൾ ക്രിസ്ത്യൻസുണ്ട് ക്രിസ്ത്യൻസിലെ എസ് റ്റി എസ് റ്റിക്കാരുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇവരെല്ലാം മെയിനായിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ജീവിത മാർഗ്ഗവും ആയിട്ടാണ് ഇവർ ഈ കടലിൽ പോകുന്നതും മീൻ പിടിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവരുടെ ജീവിത മാർഗ്ഗമാണ് ഇവരെല്ലാവരും ഒരുമിച്ചാണ് ജീവിക്കുന്നത് അതായതിപ്പം കടലിൽ പോകുന്നത് ചിലപ്പം രാത്രിയായിരിക്കും പോകുന്നത് അവരാണ് അവരൊരുമിച്ചായിരിക്കും ഉണ്ടാവുക അപ്പം എല്ലാവരും കൂടി ഒരുമിച്ചാണ് ജീവിക്കുന്നത് അപ്പോൾ ഇവരുടെ മെയിൻ ഉത്സവം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ചാകര അങ്ങനത്തെയാണ് ഇവരുടെ മെയിൻ ഉത്സവം ചാകര വരവാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട ആവശ്യത്തിലേറെ മീനുകളൊക്കെ ഒരു ഇതിൽ ഒരു വലയിടുന്നതിൽ തന്നെ കിട്ടുന്നതിനെയാണ് ചാകരയെന്ന് പറയുക അപ്പോൾ നല്ല രീതിയിലുള്ള ചാകര കിട്ടുന്നതാണ് ഇവരുടെ ഒരു ഉത്സവം കാര്യങ്ങളൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതൊക്കെ മെയിനായിട്ട് എന്താ പറയുക ഇവരെല്ലാവരും ഒരുമിച്ചാണ് ഉണ്ടാകുക